ആ ഈ വ്യത്യസ്ഥ തൊഴിലവസരങ്ങൾ തുറന്ന് തരുന്നതിൽ സാങ്കേതിക വിദ്യ വളരെ അധികം നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്നാ പുതിയ എ ഐയുടെ കാര്യങ്ങളൊക്കെ എ ഐയെ പറ്റി അറിയാനും എ ഐയുടെ കുറേ ജോലി സാധ്യതകളൊക്കെ പുതിയ കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട് അത് മൂലം ഇതു വരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജോലി സാധ്യതകൾ ആ ഈ മേഖലയിൽ ഉണ്ട് ഈ മേഖലയിലുണ്ട് അതു പോലെ തന്നെ

പുതിയ പുതിയ തൊഴിലവസരങ്ങൾ ഈ എ ഐ മൂലം നമുക്ക് തരുന്നുണ്ട് ഇപ്പം അത് ആ ഇപ്പം പ്രോംറ്റ് എഞ്ചിനിയറിംഗ് ഇങ്ങനത്തെ ആ പ്രോംറ്റ് എഞ്ചിനിയറിംഗ് വെബ് ഡെവലപ്പിംഗ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം പുതിയ കാലഘട്ടത്തിലുണ്ടായ പുതിയ കോഴ്സുകളും പുതിയ ജോലി സാധ്യതകളും ഒക്കെയാണ് ആ ഇതൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് വളരെ നല്ല രീതിയിലുള്ള തൊഴിലവസരങ്ങളൊക്കെ നമുക്ക് ലഭിക്കാനായിട്ടൊക്കെ ഇടയാകും ഇത് വളരെ അധികം ആളുകളെ സഹായിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഈ എ ഐയുടെ മേഖല അതു പോലെ തന്നെ ആ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു തൊഴിലവസരമാണ് ഇത് ഇത് മൂലം നമുക്കുണ്ടാകുന്നത് ആ അതു പോലെ തന്നെ ഈ കാലത്ത് വിദ്യാർത്ഥികൾ പഠിക്കാനിഷ്ടപ്പെടുന്ന ആ ചില സാങ്കേതിക ബിരുദം എന്തൊക്കെയാണെന്നു വെച്ചാൽ ആ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് ഗ്രാഫിക് ഡിസൈനിംഗ് പഠിക്കണമെന്ന് ഭയങ്കര താൽപ്പര്യം ഉണ്ടായിരുന്നു അതു പോലെ തന്നെ എ ഐ എ ഐയെ പറ്റി അതായത് എ ഐ പ്രോംറ്റ് എഞ്ചിനിയറിംഗ് വെബ് ഡെവലപ്പിംഗ് അങ്ങനത്തെ കുറേ കോ പുതിയ പുതിയ കോഴ്സുകളുണ്ടതൊക്കെ കുട്ടികൾ ആ ഇപ്പോഴത്തെ പുതിയ തലമുറ പഠിക്കാനായിട്ടാഗ്രഹിക്കുന്ന കോഴ്സുകളാണ് അതു പോലെ തന്നെ ഈ ട്രേഡിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഓരോത്തർക്കും ഇഷ്ടമാണ് കാരണം ഇത് പുതിയ പുതിയ തൊഴിലവസരങ്ങൾ ആ ആളുകൾക്ക് കൊടുക്കുന്നു അതു പോലെ തന്നെ ഇതൊക്കെ മൂലം ഇപ്പോൾ അങ്ങനത്തെ ആളുകളെ കിട്ടാനില്ലാത്തതു കൊണ്ട് വളരെ തൊഴുത് ജോലി സാധ്യതയുണ്ടാകാനുള്ള നല്ല നല്ല രീതിക്കുള്ള സാലറി ഇത് മൂലം ഉണ്ടാകുന്നുണ്ട് ഇത് ആ വളരെ നല്ലൊരു സാങ്കേതിക വിദ്യ വളരേ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അതു മൂലം ആ ഓരോത്തർക്കോരോ കാര്യങ്ങളും ചെയ്യാനായിട്ടൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് അതായത് ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലെ ഏറ്റവും നല്ല നല്ല രീതിയിൽ കാര്യങ്ങളറിയാവുന്ന ഒരാൾക്ക് ഏതു സ്ഥലത്ത് ചെന്നാലും ഏത് ജോലി ഏത് കമ്പനിയിൽ ചെന്നാലവർക്ക് ജോലി സാധ്യത ഉണ്ട് അവർക്കത് പോലെ ജോലികൾ നല്ല നല്ല ജോലികളൊക്കെയും ലഭിക്കാനായിട്ട് ആ ഇതുണ്ടാകും വ്യത്യസ്ഥമായ തൊഴിലവസരം ഇത് മൂലമുണ്ടാകും കൂടുതൽ പേർക്കും നല്ല നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യുവാനൊക്കെയും ഇത് മൂലം ഉണ്ടാകും അതു കൊണ്ട് ഈ പുതിയ പുതിയ വ്യത്യസ്ഥമായ തൊഴിലവസരങ്ങൾ ആ എ ഐയുടെ വരവോടു കൂടി ഉണ്ടായിട്ടുണ്ട് പല ആളുകൾക്കും ജോലി നഷ്ടപ്പെട്ട് പോയ ആളുകളും അങ്ങനത്തെ ആളുകളൊക്കെയുണ്ട് എന്നാൽ പുതിയ എ ഐയെ പറ്റി പഠിച്ച് എ ഐയുടെ കാര്യങ്ങൾ എ ഐയുടെ അവസരങ്ങളും ഒക്കെ അറിഞ്ഞൊരാൾക്ക് ആ ഇത് ആ ഇത് മൂലം ഒരുപാട് ജോലി സാധ്യതകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ അറിയാവുന്നൊരാളെ ഏതു കമ്പനി വേണമെങ്കിലും വിളിക്കുകയും ചെയ്യും അതിനെ പറ്റി അറിയാനായിട്ടുള്ള ഉള്ള താല്പര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്യും വളരെ നല്ലൊരു ജോലി മേഖല കൂടിയാണ് ഈ എ ഐ അതു പോലെ തന്നെ ഇപ്പം ഓരോ ജോലിയുടെയും ആളുകളുടെ എണ്ണം കുറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് പുതിയ എ ഐയുടെ വരവോടു കൂടി പലരും ചെയ്യേണ്ട ജോലികൾ ആ എ ഐ തന്നെ ചെയ്യുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് സാങ്കേതിക വിദ്യ തന്നെ പല പലരും ചെയ്യുന്ന ജോലികൾ സാങ്കേതിക വിദ്യ ചെയ്യുന്നുണ്ട് അത് മൂലം അവർക്ക് ആ ചിലവർക്കൊക്കെ ജോലി നഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ ചിലവരാണെങ്കിൽ ഈ എ ഐ കുട്ടി എ ഐയെ പറ്റി പഠിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുമ്പോൾ തന്നെ അവർക്കത് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടും വളരെ നല്ല രീതിക്കവർക്കത് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുകയും ചെയ്യും ഇത് ഏറ്റവും നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ജോലി മേഖല അല്ലെങ്കിൽ ഒരു ആ ഒരു തൊഴിൽ മേഖ തൊഴിൽ മേഖല കൂടിയാണ് ഈ എ ഐ പറ്റി ഉള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു എ ഐയുടെ ഇതെന്ന് പറയുന്നത് ഈ വെബ് ഡെവലപ്പും ആ വെബ് ഡിസൈനിംഗ് അല്ലായത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതു പോലെ തന്നെ ആ ആ അതു പോലെ തന്നെ ഈ ട്രേഡിംഗ് അതു പോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിംഗ് അതു പോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് പിന്നെ എന്നാ പ്രോംറ്റ് എഞ്ചിനീയറിംഗ് അങ്ങനത്തെ കുറേ ജോലി മേഖല ജോലി സാധ്യതകൾ ഈ എ ഐ മൂലം ഉണ്ടാകുന്നുണ്ട്